തീർച്ചയായും സമൂഹത്തിനെ സേവിക്കാൻ വേണ്ടി ഒട്ടേറെ യാത്രകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ പണ്ട് ചെറുപ്പകാലം തൊട്ട് ഈയുള്ള യൗവനം വരെ സമൂഹത്തെ സേവിക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എന്നാൽ ചെയ്യാൻ പറ്റുന്നത് പോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാണ് ചെറുപ്പത്തിൽ എൻ്റമ്മ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അമ്മ പഠിപ്പിച്ച് തന്ന ആ ഒരു മൂല്യം ഉയർത്തി പിടിച്ച് ജീവിക്കാനാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതിലൊന്ന് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ആ സമയത്ത് കേരള ജനത ഒട്ടാകെ പ്രതിസന്ധിയിലായിരുന്ന സമയവുമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ കാസർഗോഡ് പ്രദേശങ്ങളിൽ കണ്ണൂർ ആ പ്രദേശങ്ങളിലങ്ങനെ വെള്ളം കയറിയിട്ടില്ലായിരുന്നു മറ്റ് ജില്ലകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം ഒഴികെ തിരുവനന്തപുരം കാസർഗോഡ് കണ്ണൂരക്കെ ഒഴികെ മറ്റ് ജില്ലകളിലൊക്കെ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കാസർഗോഡിലെ വിദ്യാർഥികളെന്ന പോലെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം നടന്ന അവിടെ കുറെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ അരി പഞ്ചസാര തേയില അങ്ങനെ അത് തൊട്ട് അവരുടെ ജീവിതത്തിന് വേണ്ട സംഭവങ്ങളൊക്കെ ഉടുപ്പായിക്കോട്ടെ വസ്ത്രങ്ങളായിക്കോട്ടെ അതുപോലെ സാനിറ്ററി നാഫ്കിൻ ആയിക്കോട്ടെ ബ്രഡ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശേഖരിച്ച് ആ ക്യമ്പുകളിലേക്ക് എത്തിച്ചു അതുപോലെ തന്നെ വേറെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പ്രളയമൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ആ സമയത്ത് പ്രളയം വന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ അവരുടെ പഠനസാമഗ്രികളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വീട് തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ വിദ്യാർഥികൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിള്ളേർക്ക് വേണ്ടീട്ടുള്ള പഠനസാമഗ്രികൾ ഞങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി ബാഗായിക്കോട്ടെ പുസ്തകങ്ങളായിക്കോട്ടെ പേന പെൻസിൽ എന്നീ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശേഖരിച്ച് ഇതേപോലെ അർഹതപ്പെട്ട വിദ്യാർഥികൾക്ക് കൊടുത്തു മൊബൈൽ ഫോണ് വാങ്ങി കൊടുത്തു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത് പിന്നെ കോവിഡ് വന്ന സമയത്ത് കോവിഡെന്ന മഹാമാരി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് തൊട്ട്

സാനിട്ടൈസ് ചെയ്തിട്ടുണ്ട് സ്കൂളുകളിൽ പോയിട്ട് സാനിട്ടൈസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കോവിഡ് സമയത്ത് ഞങ്ങളാൽ ചെയ്യുന്ന പറ്റുന്ന പോലെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വേറെ മാസ്ക്ക് നിർമ്മാണം ഞങ്ങ തന്നെ തുണികൾ കൊണ്ട് വന്ന് മാസ്ക്ക് നിർമ്മിച്ച് സ്കൂളിലെ പിള്ളേർക്ക് അത് കൊടുത്തിട്ടുണ്ട് വേറെ ചെയ്ത കാര്യങ്ങൾ സേവനം എന്ന് പറയുമ്പോൾ രക്തദാനം അതുപോലെ കേശദാനം ഞാൻ എൻ്റെ മുടി കൊടുത്ത് ഡോണെറ്റ് ചെയ്തിട്ടുണ്ട് രക്തദാനം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ യാത്രകൾ ചെയ്താണ് അതാത് ആൾക്കാരെ കണ്ട് പിടിച്ച് യാത്രകൾ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് രക്തദാനം ചെയ്തിട്ടുണ്ട് വേറെ കാര്യം പറയുവാണെങ്കിൽ പാലിയേറ്റിവ് കെയർ ഞാൻ പാലിയേറ്റിവ് കെയറിൻ്റെ വോളണ്ടിയർ ആയിരുന്നു പഞ്ചായത്ത് തലത്തിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായി വയ്യാണ്ട് കിടക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുടെ വീട്ടിൽ പോയിട്ടുണ്ട് അവരുടെ മക്കൾ അതേപോലെ വയോധികർ ഇവരെയൊക്കെ കണ്ട് അവരെ പരിചരിച്ചിട്ടുണ്ട് അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും കേട്ടിരുന്നിട്ടുണ്ട് അങ്ങനെ കേട്ടിരിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മളവരെ മനസികമായിട്ട് സഹായിക്കയാണ് ചെയ്യുന്നത് ആരോരുമില്ലാത്ത ആൾക്കാർക്ക് കുറച്ച് നേരം എങ്കിലും അവർക്ക് തണലായിട്ട് അവർടെ കൂടെ അവരുടെ ആളായിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാ എന്താ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കൊരു ഉണർവ്വാണ് കിട്ടുന്നത് അവർക്ക് ആരൊക്കെയോ അവരുടെ കൂടെ ഉണ്ട് ഇനിയും ജീവിക്കണം എന്ന തോന്നലുകളൊക്കെയാണ് അവർക്ക് വരുന്നതെന്ന് അപ്പോൾ ഇതൊക്കെ സേവനത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റിയതിൽ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് എൻ്റെ ജീവിതം കൂടി ധന്യമാകുന്ന രീതിക്കാണ് ഉള്ളത് പിന്നെ വേറെ കാര്യങ്ങൾ വൃദ്ധസദനം ബദിയട്ക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അസ്സിസി വൃദ്ധസദനമുണ്ട് അപ്പോൾ അവിടെ ഞാൻ യാദൃശ്ചികമായിട്ടാണ് അവിടുത്തെ ഒരു ബോർഡ് കാണുന്നതും യാത്ര യാത്ര മദ്ധ്യേ ആണ് ഒരു ബോർഡ് കാണുന്നത് അങ്ങനെ കൗതുകം തോന്നി അവിടെ ചെല്ലുകയായിരുന്നു ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ചെന്നതും പതിനൊന്ന് അമ്മമാരുണ്ടായിരുന്നു അമ്മമാർ അതിലെനിക്ക് ഇപ്പോഴും പ്രിയപ്പെട്ട ഒരമ്മ കത്രീനാമ്മയാണ് വേറെ ഒരുപാട് പേരുണ്ട് ലക്ഷ്മിയമ്മ ഡെയിസിയമ്മ അങ്ങനെ പക്ഷേ കത്രീനാമ്മക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് അവരെന്നെ അവരുടെ കൊച്ച് മോളെ പോലെയാണ് കാണുന്നത് അന്ന് അവരുടെ കൂടെ പാട്ട് പാടി ഡാൻസ് കളിച്ച് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞതായിരുന്നു പിന്നീട് അവരെന്നോട് പറഞ്ഞത് അന്ന് പോകുമ്പോൾ ഞങ്ങളെ കാണാൻ ഇടക്കിടക്ക് വരണേ മോളെ എന്നാണ് ആ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും പാലിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ക്രിസ്മസിന് ഞാൻ അവരെ പോയി കാണാറുണ്ട് അവരുവായിട്ട് സന്തോഷം പങ്ക് വെയ്ക്കാറുമുണ്ട് വേദനിപ്പിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അവർ അതിൽ ചില ആൾക്കാർ ഇപ്പോൾ ജീവനോടെയില്ല വാർദ്ധക്യമാണ് വാർദ്ധക്യ അസുഖങ്ങൾ മൂലം അവർ മരണപ്പെട്ടിട്ടുണ്ട് ആ ഒരു സങ്കടം മാത്രമാണ് ഉള്ളിൽ ബാക്കിനിൽക്കുന്നത് എന്നാലും അവരുടെ ഓർമ്മകളും അവരുടെ കൂടെ പങ്ക് വച്ച ആ നല്ല നിമിഷങ്ങളും എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നൊരു കാര്യം ഇരിയണി എന്ന് പറയുന്ന സ്ഥലത്ത് ജാനകിയമ്മയുണ്ട് അവർക്ക് ക്യാൻസറാണ് ഞാനും എൻറ്റൊരു കൂട്ടുകാരിയും ചേർന്ന് ഞങ്ങൾ വിദ്യാനഗറുള്ള ജില്ലാ കോടതിയുടെ ഒരു ക്വിസ് മത്സരം ഉണ്ടായിരുന്നു ലീഗൽ ക്വിസ് മത്സരം അപ്പോൾ അങ്ങനെ അതിൽ പങ്കെടുത്ത് ഞങ്ങൾ സമ്മാനം വാങ്ങി ആ സമ്മാനം വാങ്ങിയ അതൊരു തുകയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് രണ്ടായിരത്തി ചില്ലറ തുകയുണ്ടായിരുന്നു അപ്പം ആ തുക ഞങ്ങൾ ഞങ്ങൾക്ക് എടുത്തില്ല എടുക്കുന്നതിന് പകരം ജാനകിയമ്മക്ക് കൊടുത്തിട്ട് അവരുടെ മരുന്നിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പിന്നെ നാട്ടിൽ തന്നെ ഉള്ള ഒരു സുമതി അമ്മ കുറച്ച് നടക്കണം കുറച്ച് യാത്ര ചെയ്യണം അവരുടെ വീട്ടിലേക്ക് അപ്പോൾ അവർക്കും ഇതുപോലെ അയ്യായിരത്തി ചില്ലറ തുക കൊടുത്തു ഇതൊക്കെ എന്നാൽ ചെയ്യാൻ പറ്റുന്നതുപോലെ ചെയ്യുന്നുണ്ട് പിന്നെ നാരായണിയമ്മ അവരുടെ വീട്ടിൽ അവർ ഒറ്റക്കാണ് അവർക്ക് സഹായമായിട്ട് ആരുമില്ല അവരുടെ വീട് അഴുക്ക് പിടിച്ച നടന്ന നിന്നിരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഒരു ദിവസം കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു എനിക്കാരുമില്ല മോളെ എന്ന് ഞാനെൻ്റെ കൂട്ടുകാരിയെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പോയി അവരുടെ വീട് മൊത്തം വൃത്തിയാക്കി കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി അതായത് തിരിച്ചൊരു ലാഭവും പ്രതീക്ഷിക്കാണ്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ വേറെ ഞാൻ എൻ എസ് എസിന്റെ ലീഡറായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ നാഷണൽ സർവ്വീസ് സ്കീം സർവ്വീസാണ് നോട്ട് മീ ബട്ട് യു എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ അപ്പോൾ സ്വാർഥമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നിസ്വാർഥമായിട്ടുള്ള സേവനങ്ങളാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ചെയ്ത് വരുന്നത്